ഹലോ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ബാഗ് വാങ്ങിയിരുന്നു ഡിസൈർ കമ്പനിയുടെ വലിയ സന്തോഷത്തിൽ വാങ്ങിച്ചതാണ് അത് പക്ഷേ ഉണ്ടല്ലോ ആ ബാഗ് ഞാൻ കൊണ്ടുവന്ന് ഞാൻ പേരെല്ലാം കണ്ട് നല്ല കമ്പനിയാണല്ലോയെന്ന് കണ്ട് അത് വാങ്ങിച്ചത് പത്തായിരം രൂപ മുടക്കുകയും ചെയ്ത് പക്ഷേ അത് കൊണ്ടുവന്ന് അതിൻ്റെ കളറുമെല്ലാം കണ്ട് ഞങ്ങൾക്കിഷ്ടപ്പെട്ടു പിറ്റേ ദിവസം കൊച്ചിനെ അത് സ്കൂളിലേക്ക് വിടാനായിട്ട് അതിൻ്റെ ബാഗ് എല്ലാം അതിനകത്ത് ബുക്കും പുസ്തകവുമെല്ലാം കയറ്റി അവൻ സ്കൂളിൽനിന്ന് കൊണ്ടുപോയി എന്നുള്ള സന്തോഷത്തിൽ കൊണ്ടുപോയി പക്ഷെ തിരിച്ചു വരുന്നത് വളരെയധികം നിരാശയിലായിരുന്നു കാരണം ബാഗിനകത്തോട്ട് ബുക്കെല്ലാം കൂടി കയറ്റി വെച്ചപ്പം അതിൻ്റെ അകത്തെ ആ ആ അറയാണെങ്കിൽ കീറി അതിൻ്റെ ആ തുണി നോക്കിയിട്ടാണെങ്കിലത് വെറും എന്നാൽ കനം കുറഞ്ഞ ഒരു തുണി അത് കീറി നിൽക്കുന്നു പിന്നെ അതിൻ്റെ സിബ്ബാണെങ്കിലും വലിച്ചിട്ട് ഒരു ഭാഗം അടന്നൊക്കെ ഇരിക്കുന്നു കൊച്ചിൻ്റെ യാതൊരു ഇത് സുരക്ഷിതത്താൽ ആകാത്തൊരു ബാഗായിപ്പോയി അത് കാരണം ഭയങ്കര നഷ്ടവും സങ്കടവും ആയിപ്പോയി ഇത്രയും കമ്പനിയുടെ പേരുകൾ നോക്കി നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പിന്നെയതുകൊണ്ട് എന്നാ ഇതായിരിക്കുന്നത് അതു കാരണം നമുക്ക് ആ കമ്പനിയുടെ പോലും ഇപ്പം പറയുന്നത് അത് കാണുമ്പം കാണുമ്പം നമുക്ക് നല്ല അട്ട്രാക്ടീവാണ് പക്ഷേ അതിനകത്തേക്കൊരു സാധനങ്ങളെ ഒക്ക്യുപ്പൈ ചെയ്യാനോ നല്ല വെയ്റ്റൊക്കെയായിട്ട് എടുത്തുകൊണ്ട് പോകാനും ഒന്നും സാധിച്ചില്ല ഭയങ്കര നിരാശ തോന്നി ഇപ്പം ബാഗിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് സങ്കടമാണ് ഇനിയും വേറെയും വില കൊടുത്ത് നമ്മൾ വേറെ നല്ല ബാഗ് വാങ്ങിക്കേണ്ട ഗതികേടല്ലേ വന്നിരിക്കുന്നത് അതു കാരണം അത്ര മാത്രം നമ്മളാഗ്രഹിച്ച് വാങ്ങിച്ച സാധനം നമുക്ക് നിരാശയാണ് തന്നിരിക്കുന്നത് കുഞ്ഞിനത് സ്കൂളിലേക്ക് ഒരു ദിവസം പോലും കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല വളരെ മോശം അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്